അവധിക്കാലം എന്ന് അങ്ങനെയൊന്നുമില്ല പക്ഷെ ഒരു ഒഴിവുദിവസം കിട്ടിയാല് ഞാനും എന്റെ കുടുംബവും ഏറ്റവും കൂടുതല് പോകാന് ആഗ്രഹിക്കുന്നതും പോകുന്നതുമായ സ്ഥലമാണ് ചെപ്പാറയെന്നു പറയുന്നത് പേരു പോലെത്തന്നെ അവിടെ പാറയാണ് പക്ഷെ ആ പാറ കയറി അതിന്റെ മുകളിലിരിക്കുമ്പോൾ കിട്ടുന്നൊരു അനുഭൂതിയുണ്ട് അതു പറഞ്ഞറിയിക്കാന് പറ്റില്ല താഴെ നിൽക്കുമ്പോള് നമുക്ക് നല്ല ചൂടനുഭവപ്പെടുകയും ഒക്കെ ചെയ്യാം പക്ഷെ ആ പാറ കയറി അതിന്റെ മുകളിലെത്തുമ്പോൾ ഒരു തണുത്ത കാറ്റുവീശും നമ്മളെത്ര കഷ്ടപ്പെട്ടാണോ ആ പാറ കയറി അതിന്റെ മുകളിലെത്തിയത് അപ്പോൾ നമുക്ക് തോന്നിയ ക്ഷീണമെല്ലാം ആവൊരു കാറ്റിലൂടെയങ്ങ് തഴുകി പോകുന്നത് പോലെ നമുക്കു തോന്നും ഞാനും എന്റെ കുടുംബവും ഒരവധി ദിവസം കിട്ടിയാൽ മിക്കതും പോകുന്നത് ഈ സ്ഥലത്തു തന്നെയാണ് ഞങ്ങള് ഒരു നാലുമണിക്ക് ശേഷമായിരിക്കും മിക്കതും അവിടെ പോകുന്നത് കാരണം ചൂട് ഒന്നു ആറിക്കഴിയുന്ന സമയമായിരിക്കും അത് വെയിലൊന്നു താഴ്ന്നിട്ടുമുണ്ടാകും ആ സമയത്ത് അവിടെ ഞങ്ങളെന്നു മാത്രമല്ല നിരവധി ആള്ക്കാർ ഈ നാട്ടിലെന്നു മാത്രമല്ല പല നാട്ടിൽ നിന്നുള്ള ആള്ക്കാരും ചെപ്പാറ കാണാനായിട്ട് വരാറുണ്ട് ഞങ്ങളൊരു നാലുമണിയാകുമ്പോൾ അതിന്റെ മുകളിൽ കയറിയിരുന്നാല് പിന്നെ അത് അവിടുത്തെ സെക്ക്യൂരിറ്റി ചേട്ടന് വന്നിട്ട് പറയും എറങ്ങാനുള്ള സമയമാകുമ്പോൾ മിക്കതും ഒരു അഞ്ചു മണി അഞ്ചരയൊക്കെ ആകുമ്പോഴായിരിക്കും ഞങ്ങള് തിരിച്ചിറങ്ങുന്നത് അത്രയുന്നേരം ആ പാറയുടെ മുകളിലിരിക്കുമ്പോൾ ഒരു തണുത്ത കാറ്റും എന്നാല് അതിനുപരി അവിടെ നിന്നു നമുക്ക് കാണാന് പറ്റുന്ന ഒരു ഭംഗിയുണ്ട് നം ആ പാറയുടെ താഴെ ഫുള് മുഴുവനും പച്ചപ്പായിരിക്കും ആ പച്ചപ്പ് കടന്ന് അതിന്റപ്പുറത്തേക്ക് പട്ടണ പ്രദേശമായിരിക്കും നമുക്ക് കാണാൻ പറ്റുന്നത് അവിടെ നിൽക്കുന്ന നമുക്ക് നോക്കുമ്പോൾ ശരിക്കും ഒരു പച്ചപ്പും അല്ലെങ്കില് ഒരു ഗ്രാമ ഭംഗിയും ഒരു പട്ടണത്തിലെ ഒരു കാഴ്ചയും നമുക്ക് താരതമ്യം ചെയ്യാന് വളരെ എളുപ്പം സാധിക്കും മൊബൈല് ഫോണുണ്ടെങ്കില് അതില് പാട്ട് വെച്ച് ഞാന് കുറച്ചു നേരം ആ ഭംഗിയും കേട്ട് അങ്ങനെ ഇരിക്കും അതും ഒരു പ്രത്യേക അനുഭൂതി തന്നെയാണ് ഞാന് ചിലപ്പോഴൊക്കെ എന്റെ മാതാപിതാക്കന്മാരോടൊപ്പമായിരിക്കും പോകുന്നത് ചിലപ്പോള് കൂട്ടുകാരുടെയൊപ്പം ചിലപ്പോൾ എന്റെ ചേട്ടന്മാരുടെയൊപ്പമോ ചേച്ചിമാരുടെയൊപ്പമോ അങ്ങനെയൊക്കെ ആയിരിക്കും പോകുന്നത് ചേട്ടന്റെയും ചേച്ചിയുടെയും ഒക്കെ ഒപ്പം പോയാല് കുറച്ചു നേരം അതിന്റെ മുകളില് കയറി ഓടി കളിക്കുന്നതും ക്രിക്കറ്റ് വരെ കളിക്കുന്നതു ഞങ്ങളവിടെ ചെയ്യാറുണ്ട് അവിടെ കളിക്കുമ്പോൾ കിട്ടുന്ന ഒരു ഒരു അനുഭൂതി അത് വേറെവിടെയും കിട്ടത്തില്ല എന്നു തന്നെയാണ് ഞാന് വിശ്വസിക്കുന്നത് ഇത്രയുമടുത്ത് അതായത് വീടിന്റെ അടുത്ത് ഇത്രയും നല്ലൊരു സ്ഥലം കിട്ടിയതു തന്നെ എന്റെ ഭാഗ്യം എന്നു ഞാന് പറയും ഈയൊരു സ്ഥലം വേറെ എവിടെയെങ്കിലും ആയിരുന്നെങ്കില് എന്നും അല്ലെങ്കില് ഒരു ഞായറാഴ്ച അവധി കിട്ടുമ്പോൾ നമുക്ക് പോകാന് പറ്റില്ലല്ലൊ അതോര്ക്കുമ്പോൾ എനിക്കൊരുപാട് സന്തോഷമുണ്ട് ആ ഭാഗ്യത്തിന് ഞാന് ദൈവത്തിനോട് നന്ദിയും പറയുന്നു